ഇന്നാണ് നമ്മുടെ ഇന്ത്യ മഹാ എന്ന് പറയുന്ന മഹാ വലിയ രാജ്യത്ത് ഒരുപാട് പാരിസ്ഥിതി പ്രശ്നങ്ങള് നടന്നോണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ നമുക്ക് മനസിലാവും ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മടെ പ്രകൃതിയിലുണ്ടാവുന്ന ഓരോ മാറ്റങ്ങള് തന്നെയാണ് നമ്മടെ പ്രകൃതിയില് പിന്നെ നമുക്ക് നമ്മളനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത് നമ്മടെ നദികളില് അതുപോലെ തന്നെ കാടുകള് മലകള് കുന്നുകള് കടല് കൃഷിയിടങ്ങള് മണ്ണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് മാറ്റങ്ങള് സംഭവിക്കുന്നത് മൂലം നമ്മടെ പരിസ്ഥിതിക്കും നാശമാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ നദികളൊക്കെ ആണെന്നുണ്ടെങ്കില് പണ്ടത്തെ നാ നാ ഓരേ നീരുറവ പോലുമല്ല നദികളൊക്ക വറ്റിവരണ്ടു പോവാണ് മാലി മാലിന്യങ്ങൾ നിക്ഷേപിക്കുയും പ്ലാസ്റ്റിക്കുകള് കൊണ്ടിട്ട് അവിടെ മൊത്തം മലിനീകരിക്കപെടുവാണ് നദികള് അപ്പം ഈ നദികള് മലിനീകരിക്കപ്പെടുന്ന സമയത്ത് അതിലുണ്ടാവുന്ന ജീവജാലങ്ങളെല്ലാം എന്തെയുന്നു നശിച്ചു പോകുന്നു അത് നമ്മടെ ആവാസവ്യവസ്ഥയെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ബാധിക്കുന്നുണ്ട് അപ്പൊ നമ്മള് കാടുകളാണെങ്കിലും മലകളാണെങ്കിലും എല്ലാം ഇടിച്ചു നിരത്തി മരങ്ങള് മുറിച്ചു അത് വേറൊരു കാര്യത്തിന് വേണ്ടി നമ്മള് ഉപയോഗിക്കുമ്പോൾ അവിടെ അവിടെ ജീവിക്കുന്ന മനു ജീവജാലങ്ങൾക്കുള്ള ആവാസ വ്യവസ്ഥ അല്ലെങ്കില് അവരുടെ ജീവനും സ്വത്തിനും എന്തെയ്യാ നമ്മള് നാശഷ നാശമുണ്ടാക്കി കൊടുക്കുകയാണ് കൃഷിയിടങ്ങളൊക്കെ എന്തെയ്യാണ് തരിശു ഭൂമികളാക്കി അവിടെ കുറെ കെട്ടിടങ്ങളൊക്കെ പൊക്കി കെട്ടുന്നു അപ്പോൾ ഇതെല്ലം എന്താണ് നമ്മുടെ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാണ് കാരണം ഇതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം നമ്മള് ഒരിക്കലും നീക്കം ചെയ്യാതെ അവിടെ തന്നെ ഇടുന്നതു മൂലം അത് ഭാവിലേക്കുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നു അപ്പം എല്ലാം ഇങ്ങനെയുണ്ടാവുന്ന മാറ്റങ്ങളു കൊണ്ട് തന്നെയാണ് നമുക്ക് മഴ ലഭിക്കാത്തതും ഇത്രയും വേന വേനൽ ചൂട് അനുഭവിക്കേണ്ടി വരുന്നതും മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുമ്പോൾ നമുക്ക് തണല് കിട്ടാതെ മഴ മാ തണല് കിട്ടുന്നില്ല നല്ല വെയിലായിരിക്കും വരുന്നത് അപ്പോൾ നമ്മുടെ ശീതകാലം വേനൽക്കാലം മഴ മഴക്കാലം എല്ലാം നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടും അപ്പ നമ്മള് ആവാസവ്യവസ്ഥക്കു നാശം സംഭവിക്കുന്നടത്തോളം കാലം നമ്മടെ പരിസ്ഥിതി എന്തെയ്യും നശിച്ചു കൊണ്ടേ ഇരിക്കുന്നു തന്നെയാണ് പറയാനുള്ളത്